ആരെ വിവാഹ ചടങ്ങാണെങ്കിലും മുസ്ലിം കേസാണെങ്കിലും എന്തായാലും ബിരിയാണി അതിൻ്റെ അതും ബിരിയാണി ചടങ്ങും അതാണ് നമ്മൾ ആ ആദ്യമേ ഓടി വരുന്നത് ഹിന്ദുക്കളേ സദ്യ സദ്യ പിന്നെ ക്രിസ്ത്യാനികളെ കേസാണ് പോർക്ക് ഇപ്പോൾ ബീഫ് ഇതൊക്കെത്തന്നെ പള്ളിയിലെ ആചാരം എല്ലാർക്കും അവരവരുടെ ആചാരങ്ങളുണ്ടല്ലോ അത് അനുസരിച്ചു കല്യാണങ്ങൾ നടക്കുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ആ മുമ്പർത്ത എല്ലാരും ഇപ്പോഴത്തെ ആചാരമായിട്ട് വരുന്ന ഒരു കേസാണ് പയ്യന്മാർ പണി കൊടുക്കുക അത് മാര്യേജ് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പണി അങ്ങനെ പിന്നെ വൈകീട്ടത്തെ ആചാരം അതൊക്കെ തന്നെ